അ ഹലോ ഞാനാണെങ്കിൽ ഇത് അക്ഷയ സെൻറ്ററല്ലെ ആ ഞാനിപ്പം വിളിച്ചതെന്ന് വെച്ചാൽ എന്റെ ആധാറാണെങ്കിൽ ഫോൺ നാ ആധാർക്ക റേഷങ്കാഡായിട്ട് ഒന്ന് ലിങ്ക് ചെയ്യണമായിരുന്നു അപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നറിയാൻ വേണ്ടിയാണ്

ആ അപ്പം ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആധാർ കാഡിന്റെ കോപ്പി അല്ലെ അത് ഓക്കെ അ അത് അവിടെ വന്നെടുത്താൽ മതിയൊ അതോ നമ്മൾ കൊണ്ട് വരണോ അക്ഷയ വന്നെടുത്താൽ പോരെ ആ ഓക്കെ ഓക്കെ അപ്പം അതിത്ര രൂപ അതെ അല്ല കോപ്പി എൻറ്റേൽ കാണാൻ സാധ്യതയില്ല അതെത്രയാവും ആ ഒരു കോപ്പി എടുക്കാൻ അപ്പം അഞ്ച് രൂപ ആ ഓക്കെ പിന്നെന്താണ് വേണ്ടത് ആ അപ്പം എത്ര കോപ്പി വേണം മൊത്തോം ആ ഓക്കെ ഒരു കോപ്പി പിന്നെ ഇനി എന്താണ് വേണ്ടത് ആ റേഷൻ കാഡ് ഇതേപോലെ ഒരു കോപ്പി മതീല്ലെ ആ ആ ഓക്കെ ഓക്കെ അ എന്റെത് മറ്റ് അ എന്റെ റേഷങ്കാഡ് മറ്റേ വെള്ള റേഷങ്കാഡ സീനൊണ്ടൊ കുഴപ്പമുണ്ടോ ആ ഓക്കെ

അല്ലല്ല സാ സാധാരണ ഉള്ള പോലത്തെ റേഷങ്കാഡ മറ്റെ ബൂക്ക

ആ ഡിജ്റ്റലാക്കാറായല്ലെ അത് അതവിടെ വന്നാൽ ശരിയാക്കാവൊ ആ അത് കൊഴപ്പൊല്ല അപ്പ ഇനി വേറെന്ത് ഇതാണ് വേണ്ടെ കോപ്പിയാണ് വേണ്ടെ പാൻ കാഡല്ലെ ആ ഓക്കെ പിന്നെ ആ ഓക്കെ പാൻ കാഡ് രണ്ട് കോപ്പി പിന്നെ ഏത് വേറെ കോപ്പിയൊന്നും വേണ്ടല്ലൊ അ അതിന്റെ എത്ര കോപ്പി വേണം രണ്ടെണ്ണം വേണോ അ ഓക്കെ ഓക്കെ അപ്പം ഇത് എപ്പം ഞാൻ വരട്ട് സമയം ഇതെത്രമണിവരെ കാണും ആ ഓക്കെ അപ്പം നാളെയും മറ്റന്നാളും വരാൻ കഴിയത്തില്ല ആ ഓക്കെ തിങ്കളാഴ്ച്ച ഞാൻ വരാം അ എന്ന് വെച്ചാൽ എപ്പം തുറക്കുവെന്നുങ്കൂടെ പറയുമോ

ആ ഓക്കെ നാലരവരെ അപ്പം ഞാൻ വരാം അ ലെഞ്ച് ബ്രേക്കൊണ്ടൊ എത്രമണിവരെ കാണും എത്രമണിവരെ കാണും ലെഞ്ച് ഓ എന്ന് വെച്ചാൽ ആ ഓക്കെ ഓക്കെ ഞാനപ്പമൊരു രാവിലെ വരാൻ ശ്രമിക്കാം കേട്ടോ അതെത്ര സമയം ആ ഓക്കെ ഓക്കെ അതൊക്കെ ആക്കാം അ ഇത് മൊത്തം എത്ര സമയം പിടിക്കും എല്ലാം കൂടെ ചെയ്തുതരാപ്പം ഓ അഞ്ചുമണിക്കൂറൊക്കെ അഞ്ച് മണിക്കൂറക്കാവൂല്ലെ ആ അപ്പം കുഴപ്പമില്ല ഞാനിവിടെ ജോലിക്ക് പോവുക അപ്പം ജോലിക്ക് പോയിട്ട് അപ്പം ലീവെടുക്കാല്ലെ എന്നിട്ട് വരാം അപ്പം ലീവെടുത്തിട്ട് വരാം ആ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ ഹാഫ് ഡേ ലീവെടുക്കാം ഹാഫ് ഡേ ലീവെടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് വേറെ ഫോമൊന്നും വേണ്ടല്ലൊ അല്ലെ അ പിന്നെ എത്രെണ്ണം വേണം പാസ്പോട്ട് സൈസ് ഫോട്ടൊ അതവിടെടുക്കുമോ ആ അവിടെ കിട്ടില്ല അപ്പം ഞാൻ വല്ല സ്റ്റുഡിയോയിൽ ആ സ്റ്റുഡിയോയിൽ പോയത് ആ സ്റ്റുഡിയോയിൽ ഞാൻ പോയത് എടുത്തോളാം അ എത്രെണ്ണം വേണം ഫോട്ടൊ മറ്റേത് അ ഓക്കെ ഓക്കെ അപ്പം അത് ഞാൻ എത്തിക്കാം അപ്പം ഞാൻ ഒരു അല്ല എത്ര മണിക്ക് തുറക്കും അ മൂന്നൂറ്റൻപത് രൂപ ആ ഓക്കെ ഇതെല്ലാത്തിന്റെയും കൂടെ ഓക്കെ ഓക്കെ കൊണ്ട് വരാം ആ ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ രാവിലെ എപ്പവരട്ട് ആ ഓക്കെ അക്ഷയ അവിടാൾക്കാരൊക്കെ ആ ഓക്കെ അവ നെറ്റ് ഇഷ്യൂന്നുവില്ലല്ലോല്ലെ അവിടെ നെറ്റ് ഇഷ്യൂ ഒന്നുവില്ലല്ലൊ അല്ലെ ആ അപ്പം കുഴപ്പമില്ല ഞാൻ വരാം എന്തായാലും അ ഓക്കെ ആ ഓക്കെ അപ്പം ആ ഓക്കെ ഓക്കെ എന്നാൽ പിന്നെ ശരി കേട്ടോ ആ ഓക്കെ